എഴുത്തിലൂടെ നമുക്ക് വളരേയധികം കാര്യങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ അത് അവർക്ക് മനസ്സിലാക്കിക്കൊടുക്കുവാനായിട്ട് സാധിക്കും നമ്മൾ പ്രവർത്തിയിലൂടെ തെളിയിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ദുരാചാരങ്ങളും അതുപോലെത്തന്നെ ചൂഷണങ്ങൾ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമെതിരെയുള്ള പീഡനങ്ങളും പെരുകിവരുന്ന കൊല കൊല്ലുവിളി അങ്ങനെയായ് പോവുന്ന കാര്യങ്ങൾ സമൂഹത്തിനോട് സംസാരിച്ചാലത് നിലനിൽക്കുകയില്ല എങ്കിൽ എഴുത്തിലൂടെ നമ്മൾക്ക് പത്രത്തിലൂടെ അതുമല്ലെങ്കിൽ നമ്മൾ മാസ് മീഡിയ എന്നു പറഞ്ഞാൽ നമ്മൾക്കെല്ലാവരിലും എത്തിക്കാനായിട്ട് ഒരു എഴുത്തുകാരന് സാധിക്കുമെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ് കാരണം സാഹിത്യ സംസ്കാരവും പാരമ്പര്യമുള്ള നമ്മുടെ നാട്ടിൽ എഴുത്തുകാർ കവികളും അതുപോലെത്തന്നെ സാഹിത്യകാരന്മാരുമൊക്കെ നമ്മൾ അവർക്ക് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എഴുതിയാണവർ അതൊരു തെളിവാണ് എഴുതിവെച്ച് എഴുതിവെച്ച ഒരു കാര്യം ആർക്കുമതിനെ അതിനെ തുടച്ചുനീക്കാൻ പറ്റില്ല സംസാരിക്കുകയാണെങ്കിൽ അത് പിന്നീടത് റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ അത് നടക്കത്തില്ല എഴുത്തിൽ എഴുതിവെച്ചിരിക്കുന്ന ഒരു കാര്യം അതിലൂടെ വളരെയധികം കാര്യം നമുക്ക് പ്രയോജനമുണ്ടാകും നമ്മുടെ സമൂഹത്തിൽ ആവശ്യമുള്ള എല്ലാ നല്ല തലങ്ങളെ നല്ല ആവശ്യമുള്ള നല്ല കാര്യങ്ങളെ നമുക്ക് സമൂഹത്തിന് മുമ്പിൽ എഴുതി നമ്മുടെ ആഗ്രഹങ്ങൾ അതുപോലെ നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മൾ നമുക്ക് സാധിക്കാം എന്നുള്ളതിൽ എഴുത്തിൻ്റെ ഒരു മേന്മയാണ് എഴുതി എഴുതി വെയ്ക്കുന്ന ഒരു നമ്മൾ കുറേ കലാകാരന്മാരും ഉള്ള നാടാണ് നമ്മുടെ കേരളം അതുകൊണ്ട് സൊ ഇപ്പോഴുള്ള തലമുറ ഈ എഴുത്തും വായനയും കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം കൂടിയാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ എഴുതിവെക്കുന്ന കാര്യങ്ങൾ മഹാന്മാരായ വ്യക്തികൾ എന്തെല്ലാം കാര്യങ്ങളെഴുതി അവരുടെ അഭിലാഷങ്ങൾ അവർ പറഞ്ഞ് അവർ മരിച്ചുപോയാലും കുറേക്കാലം കഴിഞ്ഞ് അവർക്ക് അവർക്കാ ലക്ഷ്യബോധത്തിലവരെ ആ ലക്ഷ്യത്തിലവർക്ക് സമൂഹത്തിന് നേട്ടം വരുന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് എഴുത്തും വായനയും അറിയാൻ മേലാതിരിക്കുന്ന കുട്ടികളുള്ള ഈ ലോകത്ത് ഇപ്പോൾ ഇപ്പോഴുള്ള നമ്മുടെ കുട്ടികൾക്ക് എഴുത്തിനോടൊന്നും വല്യ താൽപ്പര്യമില്ല അവർ ആധുനിക രീതിയിലുള്ള മെസ്സേജ് വിടലും അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് നീങ്ങുമ്പോൾ എഴുത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എഴുതി നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നേടാൻ പത്ര വിടാൻ സാധിക്കും എന്നുള്ളതും അതൊരു ശ്രദ്ധേയമായ കാര്യമാണ് എഴുത്തിന് വളരെയധികം മാഹാത്മ്യമുണ്ട് എന്നുള്ളത് പുതിയ തലമുറകൾ മനസ്സിലാക്കേണ്ടതാണെന്നുള്ളതും പഴയ സംസ്കാരത്തിലേക്ക് നമ്മൾ തിരിച്ചുവരേണ്ടതാണ് എല്ലാ കാര്യങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാനും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും നമ്മൾ എഴുത്തിലൂടെ വേണം ജീവിതം മുന്നോട്ട് നയിക്കേണ്ടതെന്നും മൻസ്സിലാക്കാൻ പുതിയ തലമുറയ്ക്ക് ഒരു നമ്മളൊരു മുന്നോടിയായ് പുല പുതിയ തലമുറയ്ക്കൊരു പാഠമാക്കാനായിട്ടും നമുക്ക് എഴുത്ത് സഹായിക്കും എന്നുള്ളത് ആണെൻ്റെ അഭിപ്രായം